എനിക്ക് സ്വന്തമായിട്ട് ഒരു ബൈക്ക് ഉണ്ട് ആ ബൈക്കിനെ ഞാൻ ഏറെ പരിപാലിച്ചു കൊണ്ടൊക്കെ തന്നെ ആണ് പോകുന്നത് കാരണം കറക്റ്റ് ടൈമുകളിൽ സർവ്വീസ് ചെയ്തും കറക്റ്റ് ടൈമിൽ അതിനെ നല്ല രീതിയിൽ നീറ്റായിട്ട് കൊണ്ടു പോകാനും ഞാൻ ഏറെ ശ്രദ്ധിക്കാറുണ്ട് മരണ വെപ്രാളത്തിൽ ഓടിക്കുന്ന പതിവ് നമുക്ക് ഇല്ല നമുക്ക് അതിൽ അങ്ങനെ ഇല്ല അതിൽ നമ്മൾ ഏറിയ ഇതും നമ്മളുടെ വണ്ടിയെ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഞാൻ ഇപ്പോഴൊരു ജോലിക്ക് പോകുന്നൊരു വ്യക്തിയാണ് അപ്പോൾ മറ്റുള്ള ഗതാഗത വാഹനങ്ങളിൽ നിന്നു ഉപരി എന്നെ ഏറെ സഹായിക്കുന്നത് ബൈക്ക് ആണ് കാരണം കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്രകളിൽ കൂടുതൽ ടൈം എനിക്ക് പോകുവാനായിട്ട് കഴിയും ബൈക്ക് പരിപാലിക്കാൻ നല്ലയോണക്ക് അതായ ടൈമിൽ ഓയിലുകളും മാറ്റിയും അതായ ടൈമിൽ റഷ് ഡ്രൈവ് ഒന്നും ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ ഓടിച്ചു കൊണ്ടു അപകടങ്ങളൊന്നും വരുത്താതെ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന മെക്സിമം നല്ല രീതിക്കു തന്നെ നമ്മൾ മുൻപോട്ട് ആ അതിനെയും കൊണ്ടു പോകാനായിട്ട് നമ്മൾ ഏറെ

ശ്രമിക്കാറുണ്ട് പിന്നെ മടുപ്പെന്നു പറയുന്നത് നമ്മുടെ ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇപ്പോൽ ഒരു കംപ്ലൈൻ്റ് ഉണ്ട് ആ കംപ്ലൈൻ്റ് വെച്ച് നമ്മൾ കുറെ ദൂരമൊക്കെ ഓടിച്ചു പോകുമ്പോൾ ആ കംപ്ലൈൻ്റിൻ്റെ ഇതിൽ നമുക്ക് മടുക്കാനായിട്ടുള്ള സാഹചര്യം വളരെ ഏറെ ആണ് അല്ലാതെ ബൈക്ക് ഇപ്പോൾ എൻ്റെ ഈ കാഴ്ചപ്പാടിൽ അതായത് എൻ്റെ ഇത് വെച്ചു പറയുകയാണെങ്കിൽ എനിക്ക് ഏറെ ഏറെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഡ്രൈവിംഗ് എന്നു പറഞ്ഞാൽ മടുക്കാത്ത ഒരു സംഭവമാണ് ഈ ഡ്രൈവിംഗ് എന്നു പറഞ്ഞാൽ കാരണം ഞാൻ എനിക്ക് ലൈസൻസ് കിട്ടുന്നതിന് വണ്ടിയോടിക്കുന്നതിനു മുൻപും ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഈ ഡ്രൈവിംഗ് എന്നു പറയുന്നത് ഡ്രൈവിംഗ് അതായത് ബൈക്കിലൊക്കെ കൂട്ടുകാരുമൊത്ത് ട്രിപ്പ് പോകുന്നതും ബൈക്കിലൊക്കെ ഒറ്റയ്ക്കൊക്കെ പോയി യാത്രകളൊക്കെ പോകുന്നതും ഏറെ ഇഷ്ടമാണ് മടുപ്പായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ കണ്ടിന്യൂസായിട്ട് വണ്ടിയോടിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് നടുവേദന തുടങ്ങിയ സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടാകാറുണ്ട് അല്ലാതെ വേറെയൊന്നും നമുക്ക് ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല നമ്മളുടെ ദീർഘ ദൂര യാത്രകളൊക്കെ പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന മുൻകരുതലുകൾ എന്നു പറയുന്നത് നമ്മൾ നമ്മൾ വണ്ടി നല്ലതു പോലെ കഴുകി നല്ല വൃത്തിയായിട്ട് നമ്മൾ യാത്രകളിൽ കൊണ്ടു പോകാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് വണ്ടിയുടെ ഗിയറുകൾ ചെക്ക് ചെയ്ത് കാരണം നമ്മൾ പോകുന്നത് നമ്മൾ വഹിച്ചു കൊണ്ടു പോകുന്നത് വാഹനമാണല്ലോ നമ്മുടെ ബൈക്ക് എന്നൊക്കെ പറയുക അപ്പോൾ അതിന് നമുക്കും അപകടം വരുത്താതെ രീതിയിൽ എയർ പരിശോധിച്ചും ഓയിൽ പരിശോധിച്ചും ബ്രേക്കിംഗ് എല്ലാം നോക്കിയിട്ട് അതിനായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം ചെയ്ത് ടയറൊക്കെ പഴയതാണെങ്കിലും പുതിയ ടയറുകൾ ഇട്ടൊക്കെയാണ് നമ്മൾ പുതിയ യാത്രകൾ ഒക്കെ പോകാറ്

യാത്രകൾ പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി ആഗ്രഹമാണ് യാത്രകൾ പോകാറുമുണ്ട് ബൈക്കിൽ ബൈക്കിൽ തന്നെ പോകാൻ ആണ് ഏറെ ആഗ്രഹവും ഇപ്പോഴും ബൈക്കിൽ തന്നെ എന്നാലും മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ചു പോകാൻ കുഴപ്പൊന്നുമില്ല പക്ഷേ ബൈക്കിൽ തന്നെ പോകാൻ ആണ് നമുക്ക് ഏറെ ആഗ്രഹവും നമ്മൾ അതു തന്നെ ആണ് ഉപയോഗിക്കാറുള്ളതും പിന്നീട് മടുപ്പിക്കുമെന്ന് നമുക്ക് ഇതു വരെ തോന്നിട്ടില്ല ഡ്രൈവിംഗ് എന്നു പറയുന്നത് എനിക്ക് മടുക്കാത്ത ഒരു സന്ദർഭമാണ് അതു കൊണ്ട് ഇതുവരെ ആയിട്ട് മടുത്തിട്ടൊന്നുമില്ല